വിവാഹങ്ങളിൽ ആളുകൾക്ക് ഒത്തിരി സമ്മാനങ്ങൾ കൊടുക്കുന്നതാണ് ഇന്ന് കാണുന്നത് പണ്ടൊക്കെ ഇത്രയും സമ്മാനം കൊടുക്കുന്നതായിട്ടൊന്നും കാണുന്നില്ലായിരുന്നു സ്ത്രീധനമായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ സമ്പത്ത് സമ്പത്തായിട്ട് കൊടുക്കും സ്വത്തായിട്ട് കൊടുക്കുന്നുണ്ട് വസ്തുവായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ സമ്മാനങ്ങൾ പിന്നെ ഡ്രെസ്സുകൾ പിന്നെ അങ്ങനെത്തെ സമ്മാനങ്ങൾ കൊടുക്കുന്നവരും കണ്ടിട്ടുണ്ട് നിയമപരമായിട്ട് അങ്ങനെ സ്ത്രീധനം ഒന്നും കൊടുക്കാനുള്ള ഇല്ലെങ്കിലും ആൾക്കാർ കൊടുക്കുകയും തങ്ങളുടെ മക്കൾക്ക് ആവശ്യമുള്ളത് കൊടുക്കണം എന്നുള്ളവർ മനോഭാവം പേരൻസിനുള്ളത് കൊണ്ട് അവരത് കൊടുക്കുന്നത് പതിവാണ് സ്വത്ത് സമ്പത്തുള്ളവർ അതനുസരിച്ച് ഒന്നും രണ്ടും മക്കളൊക്കെ ഉള്ളതുകൊണ്ട് അവർ എത്രമാത്രം അവർക്കുണ്ടോ അത് മുഴുവനും മക്കൾക്ക് കൊടുക്കാനുള്ള ഒരു പ്രവണത ഇന്ന് ഉണ്ടായിട്ടുണ്ട് കൂടുതൽ ആളുകളും സമ്മാനമായിട്ട് സ്വത്ത് പിന്നെ പണം അങ്ങനെ കൊടുക്കുന്നതാണ് കണ്ടിട്ടുള്ളത് ആ പണ്ട് കാലത്ത് സഹകരണം മറ്റുള്ളവരുടെ മറ്റുള്ളവരോട് സഹകരിച്ച് അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ സഹകരിച്ച് ആൾക്കാ മറ്റുള്ളവരോടൊക്കെ വാങ്ങിച്ച് അല്ലെങ്കിൽ ചോദിച്ച് അങ്ങനെയൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇന്ന് മനുഷ്യർക്ക് പണമുള്ളവന് ഇഷ്ടംപോലുണ്ട് ഇല്ലാത്തവന് ഇല്ല പക്ഷെ ഉള്ളവന് ഉള്ളവർ എത്രമാത്റം അവർക്ക് കൊടുത്താലും മതിയാകാത്ത വിധം അവർ കൊടുക്കുന്ന ഒരു പതിവ് കാണുന്നുണ്ട് പണം കഴിഞ്ഞാൽ പിന്നെ വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ നാനാതരത്തിലുള്ള ഏതൊക്കെ തരത്തിലുള്ള വസ്ത്രങ്ങളാണോ പുതിയ പുതിയ ഫാഷനുകളിലുള്ള വസ്ത്രങ്ങൾ അങ്ങനെ കൊടുക്കുന്നത് അത് ആൺകുട്ടികൾക്ക് ആണെങ്കിലും പെൺകുട്ടികൾക്ക് ആണെങ്കിലും നാനാതരത്തിലുള്ള വസ്ത്രങ്ങൾ ഒരു ഇന്ന് വിവാഹം കഴിഞ്ഞ ഉടനെ വധൂവരന്മാരവർ വിവാഹത്തിൻ്റെ ആ സമയത്ത് തന്നെ പലത് മാറി മാറി പല ഒരു ദിവസം തന്നെ പല ആ ഒരു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയും പല വസ്ത്രങ്ങൾ അതും വലിയ ആർഭാട മുള്ള വസ്ത്രങ്ങൾ മാറി ഉപയോഗിക്കുന്നത് ഇന്ന് നിലവിലുണ്ട് ഇപ്പോൾ ഇപ്പോൾ കൂടാതെ കൂട്ടുകാരുടെ കൂട്ടുകാരും അങ്ങനെയുള്ളവരൊക്കെ ഡിജിറ്റൽ ആയിട്ടുള സമ്മാനങ്ങൾ ഇന്ന് ഫോണ് ലാപ്പ്ട്ടോപ്പ് അങ്ങനെയുള്ള വസ്തുക്കളും സമ്മാനമായിട്ട് ഇന്ന് കൊടുക്കുന്ന ഒരു പതിവുണ്ട് നിയമപരമായിട്ട് സ്ത്രീധനം കൊടുക്കുന്ന കൊടുക്കുന്നില്ലെങ്കിലും സ്ത്രീധനം ഇന്നും കൊടുക്കുന്ന ഒരു പതിവ് കൂടിക്കൂടി വരികയാണ് അത് തങ്ങൾക്കുള്ളത് മകൾക്ക് കൊടുക്കണമെന്നുള്ള ഒരു ചിന്തയിൽ അവർ എത്രമാത്രം കൊടുക്കാവോ അത്രമാത്രം അത്രയും കൊടുക്കുന്നുണ്ട് ചിലർ ചെല വ്യക്തികൾ അത് ചോദിക്കാനും മടിയില്ലാതെ ചോദിക്കുന്ന ഒരു കാല ചോദിക്കുന്നവരുമുണ്ട് പിന്നെ ഇത് ആഭരണങ്ങൾ ആണെങ്കിലും സമ്മാനങ്ങളായിട്ട് കൊടുക്കുക അത് സ്വത്തുള്ളവർ ആഭരണങ്ങൾ അവരുടെ ബന്ധുക്കളും ഒക്കെ കല്യാണം വിവാഹം വരുമ്പഴത്തേനും മറ്റുള്ളവർക്ക് വളയോ അല്ലെങ്കിൽ ആഭരണങ്ങൾ ആവശ്യമുള്ള ആഫരണങ്ങൾ സമ്മാനമായിട്ട് കൊടുക്കുന്ന ഒരു പതിവും ഇന്ന് നിലവിലുണ്ട് ഈ കാലഘട്ടത്തിൽ സ്ത്രീധനം പിന്നെ സ്ത്രീധനം മനസ്സറിഞ്ഞാണ് കൊടുക്കുന്നത് ആരും അങ്ങനെ ചോദിക്കാറില്ല പെൺകുട്ടികളുടെ ഭാഗത്ത് ഇപ്പം ഈ ആൺകുട്ടികളുടെ വീട്ടുകാരും അല്ലെങ്കിൽ ആൺകുട്ടികൾ അത് ചോദിക്കാനായിട്ട് അവർ ചോദിക്കാറില്ല പൊതുവെ എങ്കിലും പെൺകുട്ടികളുടെ വീട്ടുകാർ അവർക്ക് സ്വത്തുള്ളത് അനുസരിച്ച് കൊടുക്കാനായിട്ട് അവർ ശ്രമിക്കാറുണ്ട്